എനിക്കിപ്പം ഒരുപാട് വണ്ടിയിഷ്ടമാണ് അതിലേറ്റവും കൂടുതൽ വണ്ടിയിഷ്ടമെന്ന് പറയുമ്പം കെ ട്വൻറ്റിയാണ് ഇപ്പം റൂട്ടുകൾ പറയുമ്പം ഞാൻ ഒരുപാട് സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ല എനിക്കാണെങ്കിൽ വണ്ടി ഇല്ല വണ്ടി ഉണ്ടായിരുന്നെ ഞാനൊരുപാട് സ്ഥലങ്ങളിൽ പോയേനെ ഇപ്പം പോകാനാഗ്രഹമുള്ള സ്ഥലങ്ങൾ പറയുമ്പം എനിക്ക് തന്നേ പോകാനിഷ്ടമല്ല എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരുപാട് നല്ല നല്ല വ്യൂ ഉള്ള നമ്മുടേ ഇവിടെ കേരളത്തിൽ തന്നെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അവിടെയെല്ലാം എനിക്ക് പോയി ഫ്രണ്ട്സിൻ്റെ കൂടെ കണ്ട് അടിച്ച് പൊളിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അങ്ങനേ ഒരുപാട് ദൂ ദൂരെ പോകണോയെന്നൊന്നു ചോദിച്ചാൽ ഒരുപാട് വണ്ടി ഓടിക്കുന്നത് ഇഷ്ടമല്ല ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ ചുമ്മാ ചില്ല് ചെയ്യാൻ പോകണോയെന്നൊക്കെ ഭയങ്കര ആഗ്രഹമാണ് ഇപ്പം ഒരുപാട് റൂട്ടുകൾ എനിക്കങ്ങനെ വണ്ടിയിലിരുന്ന് ഞാൻ പോകാത്തതുകൊണ്ട് എനിക്ക് റൂട്ട്കളൊന്നും അറിയത്തില്ല പക്ഷേ എന്നാലും ഇപ്പം ഡിജിറ്റൽ ലോകമായതും കൊണ്ട് തന്നെ റൂട്ടുകൾ നമുക്കിപ്പം ഫോൺ ഡിജിറ്റ് ബോക്സ് സ്മാർട്ട് ഫോണുള്ളത് കൊണ്ട് ഫോണിൽ നോക്കിക്ക തന്നെത്താനെ നമുക്ക് റൂട്ടുകളെല്ലാം മനസ്സിലാകുന്നതാണ് ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിൽത്തന്നെ ഉണ്ട്